താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപെട്ട കായിക ഇനം ഏതാണ് അതുപോലെ ഏത് താരത്തെയാണ് താങ്കൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് എനിക്ക് ഏറ്റവും അധികം ഇഷ്ട്ടമുള്ളത് സച്ചിൻ ടെണ്ടുൽക്കറെയാണ് കായിക ഇനം പിന്നെ ഇനമെന്ന് പറയുന്നത് ക്രിക്കറ്റാണ് ക്രിക്കറ്റില് ദൈവം എന്നറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കറെയാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം അദ്ദേഹത്തിന് ഒരുപാട് മറ്റ് സഹകളിക്കാരേക്കാള് ഒരുപാട് റെക്കോർഡുകളുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കളിയോടുള്ള ആത്മാർഥത അതൊക്കെയാണ് ക്ഷമയോടെ ഏതൊരു കളിയേയും ആദ്യമായി കളിക്കുന്ന രീതിയിൽ തന്നെ അതേ ശൈലിയിൽ തന്നെ ഏറ്റവും ആത്ഥമാർഥതയോടെ കളിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ആണ് അത് മറ്റ് സഹകളിക്കാരെക്കാട്ടിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്ര ഉന്നതങ്ങളില് എത്തുവാൻ ഇടയായിട്ടുള്ളതും സഹകളിക്കാരോട് ഉള്ള പെരുമാറ്റം കാണികളോടും

അമ്പെയ്ർമാര് അവരോടൊക്കെയുള്ള പെരുമാറ്റ രീതികളൊക്കെ നമുക്ക് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് ക്രിക്കറ്റിനെ ഞാന് ഏറ്റവും അധികം ആരാധിക്കുന്നു ഏറ്റവും അധികം കാണുവാൻ ഇഷ്ടപെടുന്ന ഒരു കായിക ഇനം കൂടിയാണ് ക്രിക്കറ്റ്